മലയാള ഭാഷയെ നമ്മുടെ ഔദ്യോഗിക ഭാഷയുമായി ഹിന്ദിയുമായി താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ സത്യം പറഞ്ഞാൽ ഒരു വെ വളരെ വിചിത്രമായൊര് താരതമ്യമാണ് വരുന്നത് കാരണം മലയാള ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മദർ ട്ടങ് ആണെങ്കിൽ കൂടി ഈ മലയാള ഭാഷ ബാക്കി ഉള്ളവർക്ക് പറയാൻ വളരെ വളരെയധികം പ്രയാസമാണ് നമ്മൾ കുഞ്ഞിലെ മുതല് ശീലിക്കുന്നത് കൊണ്ടാണ് മലയാള ഭാഷയെ നമ്മുടെ നമുക്ക് വളരെ എളുപ്പമായിട്ട് പറയാൻ സാധിക്കുന്നത് പിന്നെ വേറൊര് കാര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മലയാള ഭാഷ ഈ കേരളം വിട്ട് പോയി കഴിഞ്ഞാൽ മലയാള ഭാഷയെപ്പറ്റി ഒരാൾക്കും ഒന്നും അറിയുകയില്ല നമുക്ക് ഈ മലയാള ഭാഷ ഒരിക്കലും ഒരിടത്തും ഉപയോഗിക്കാനും പറ്റില്ല അതൊക്കെ ആർക്കും മനസ്സിലാകത്തുമില്ല

ദേശത്തും നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഹിന്ദി ഔദ്യോഗികമായ ഭാഷ ആയിട്ടുണ്ട് അത് ഉപയോഗിക്കുന്ന ഭാരതത്തിൻ്റെ ഭാഷ ഹിന്ദി ആയിട്ടാണ് പറയുന്നത് അതിൻ്റെ കാരണവും അതുതന്നെയാണ് പല ഭാഗങ്ങളിലും പല സാ സ്ഥലങ്ങളിലും ഹിന്ദി അറിയാവുന്ന എല്ലാവരും ഹിന്ദി അറിയാവുന്ന പല ആൾക്കാരും ഉണ്ട് പക്ഷേ മലയാളം അറിയാവുന്നത് അത് വെച്ച് നോക്കുമ്പഴത്തേയ്ക്കും മലയാള ഭാഷ അറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ് നമുക്ക് കഴിഞ്ഞ് നമ്മള് വേറൊരു സ്ഥലത്തേക്ക് വന്ന് കേരളം വിട്ട് നമ്മള് വേറൊര് ഏതൊര് സ്റ്റേറ്റിലേക്ക് പോകുവാണെങ്കിൽ കൂടി നമുക്ക്

ആൾക്കാര് ഹിന്ദി ഹിന്ദി കൂടുതലും മനസ്സിലാക്കാൻ സാധിക്കും ഹിന്ദി കൂടുതലും പറയുന്നവരുമാണ് അവിടെയുള്ളവരെല്ലാം അത്കൊണ്ട്തന്നെ ഹിന്ദി ഔ ഹിന്ദി ഒര് ഔദ്യോഗിക ഭാഷയായിട്ട് നമ്മള് കണക്കാക്കുന്നു മലയാളത്തെ വെച്ച് നോക്കുമ്പോൾ അത്കൊണ്ട്തന്നെ മലയാളവും ഹിന്ദിയും തമ്മിൽ താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ വലിയൊര് താരതമ്യമാണ് ഒരിക്കലും നമുക്ക് മലയാള ഭാഷയെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാഷ ആയിട്ട് കാണാൻ സാധിക്കുകയില്ല കാരണം നമുക്ക് മാത്രം അറിയാവുന്നത് കൊണ്ട് നമ്മുടെ മലയാള ഭാഷ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് നമ്മള് കേരളം വിട്ട് വേറെ ഏതൊരു ഏതൊരു സലത്തേക്ക് പോയാൽ കൂടി ഇപ്പം തമിഴ്നാടായിക്കോട്ടെ കർണാടകയായിക്കോട്ടെ ബീഹാറായിക്കോട്ടെ ഗുജറാത്തായിക്കോട്ടെ ഡെല്ലിയായിക്കോട്ടെ ഏതൊര് സ്ഥലങ്ങളിൽ പോയാൽ പോലും ഇവിടൊന്നും ആരും മലയാളം സംസാരിക്കുകയില്ല മലയാള ഭാഷ നമുക്ക് കേൾക്കാൻ കൂടി കഴിയില്ല ആകപ്പാടെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒന്നെങ്കിൽ ഹിന്ദി വിജ്ഞാനം കൂടുതൽ ഉള്ളിടത്ത് ആണേൽ ഇംഗ്ലീഷ് അതും ലിട്രസി റേയ്റ്റ് വളരെ കൂടിയ ന്നേലുള്ള വളരെ കൂടുതലുള്ള കേരളത്തിലാണ് അത് വിട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അവറിയാവുന്നത് അവരുടെ മദർ ടങ്ക് മാത്രമാണ്

കൂടുതലാൾക്കാർക്കും ഹിന്ദിയാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യും ഹിന്ദിയാണ് അവര് കൂടുതൽ സംസാരിക്കുന്നത് അത്കൊണ്ട്തന്നെയാണ് ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ട് കരുതുന്നതും മലയാളം